ഹലോ ഇത് ഗ്യാസ് ഏജൻസിയല്ലേ ഞാൻ സെയ്നുല് ആബിദ് ഞാൻ എൻ്റെ വഴിപ്പാറ എന്നുള്ള സ്ഥലത്തു നിന്നും ഇപ്പോൾ വീടു മാറി വേറൊരു ഇടത്തേക്കു വീടു മാറ്റിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ സ്ഥലത്തുനിന്നും മാറ്റേണ്ടിയിരിക്കുന്നു അതുപോലെത്തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ഗ്യാസ് സിലിണ്ടറിൻ്റെ അത്യാവശ്യമുണ്ടായിരുന്നു താങ്കളുടെ ഏജൻസി മുഖേന ഞങ്ങൾക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ എത്രയും പെട്ടെന്നു സംഘടിപ്പിച്ചു തരണം ഞങ്ങളുടെ ഗ്യാസ് ഐ ഡി എന്നുള്ളത് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് ആറ് രണ്ട് ഒമ്പത് രണ്ട് രണ്ട് പൂജ്യം എട്ട് ആണ് എൻ്റെ ഗ്യാസ് ഐ ഡി എന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ പുതിയ വിലാസം എന്നുള്ളത് കക്കാട്ടിൽ ഹൗസ് അങ്ങാടിപ്പുറം ചെരക്കാപറമ്പ പി ഒ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കേരള അതുപോലെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് താങ്കളുടെ സിലിണ്ടർ എത്തിച്ചു തരണമെന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്നു പരിഗണിക്കണമെന്നും അഭ്യർഥിക്കുന്നു അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മെസ്സേജിനു റിപ്ലൈ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക്യൂ